എന്താ മോളേ പറഞ്ഞോ ആ മോൾക്ക് എവിടെയൊക്കെയാണ് പോകേണ്ടത് ആ ആ ബീച്ച് എന്ന് പറയുമ്പം ഡ തലശേരി ബീച്ച് ഉണ്ട് നല്ല സ്ഥലം ആയിരുന്നു ദൂരം എന്ന് പറയാൻ അത്യാവശ്യം ചെറിയ ഒരു ഇതിൽ ഒരു തലശ്ശേരി ഹോസ്പിറ്റൽ ഉണ്ട് ഇവിടുന്നു വലത്തോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാല് തലശ്ശേരി ഹോസ്പിറ്റൽ ആണ് അപ്പോൾ അതിലൂടെ പോയി കഴിഞ്ഞാൽ എത്തും വേണ്ട മോളേ നടക്കണ്ട ദൂരമേ ഉള്ളൂ അതിപ്പം നിങ്ങൾ അവിടുന്നു പോയിട്ട് കടൽ പാലം കണ്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു ലൈറ്റ് ഫുഡ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട് ഹോട്ടൽ ഉണ്ട് അവിടെ നല്ല ഫുഡ് കിട്ടും വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം ആണ് വേറെ സ്ഥലം എന്ന് പറയേ തലശ്ശെരി മാള് ഇവിടുന്ന് അടുത്ത് തന്നെ ആണ് പിന്നെ ഉള്ളത് പറയാനെന്ന് പറഞ്ഞ്കഴിഞ്ഞാല് ഇവിടെ അത് തന്നെ ആണ് കടൽ കടപ്പുറം തന്നെ ആന്ന് ഭയങ്കര ഇതായിട്ട് ഉള്ളത് പിന്നെ മുഴപ്പിലങ്ങാടി ബീച്ച് നല്ല നല്ലതാണ് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ദൂരം ഇല്ല എന്നാലും കുറച്ച് പോകണം നടക്കണ്ട ദൂരമേ ഉള്ളു ആ പിന്നെ എവിടെയാണ് പോകേണ്ടത് ബിരിയാണീ എന്ന് പറയുമ്പം ഒര് പെപ്പർ പാലസ് ഉണ്ട് തലശേരിയിൽ തന്നെ ആണ് അത് അവിടെ നല്ല ബിരിയാണി ഉണ്ട് നല്ല തലശേരി ദം ബിരിയാണി എല്ലാം ഉണ്ട് വേറെ സ്ഥലം എനിക്ക് അങ്ങനെ അത്ര അറിയില്ല മോളേ പിന്നെ നിങ്ങൾ എവിടുന്നാണ് വരുന്നത് അതെ അല്ലെ ആ ഞാനും ആ ഞാൻ ഇവിടെ അടുത്തുള്ള പ്രദേശത്ത് തന്നെ ആണ് താമസിക്കുന്നത് എനിക്ക് അറിയുന്ന കുറച്ച് സ്ഥലങ്ങളാണ് ഞാൻ പറഞ്ഞ് തന്നത് പിന്നെ തലശേരി കോട്ട നല്ലതാണ് ആ ഈ സമയം ആകുമ്പോൾ കുറച്ചൊരു വെയില് ഉണ്ടാവും എന്നാൽ കൂടി നിങ്ങൾക്ക് കൂട്ടുകാര് എല്ലാം ആയിട്ട് ഒത്തു പോവാൻ പറ്റിയ സ്ഥലം ആണ് ആ ആ ശരി മോളേ